കുടുംബം കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും കുറെ ആളുകൾ അതിൽ വ്യാപൃതരാകാൻ തയ്യാറാകുന്നില്ല കാരണം കൃഷിയുടെ മഹത്വം എന്തെന്നും കൃഷി എന്തെന്നും തിരിച്ചറിയാതെ പോകുന്ന ഒരു പറ്റം യുവാക്കൾക്കിടയിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് ആധുനികതയുടെ പിന്നിലേക്ക് പോവുകയാണ് നമ്മുടെ സമൂഹം ടെക്നോളജിക്കൽ ആയിട്ടുള്ള അപ്ഡേഷൻസുകളും അതുപോലെ പഴമയെ മറന്ന് പുതുമയിലേക്ക് തേടി പോകുന്ന ഒരുപറ്റം ആളുകൾക്കിടയിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത് കൃഷി എന്നു പറയുന്നതിൻ്റെ മഹത്വവും നമ്മുടെ അന്നമാണ് കൃഷി എന്നുള്ള ബോധ്യവും നഷ്ടപ്പെട്ടു പോകും അതുപോലെ പഴയകാലത്തെ മനുഷ്യരെ വെച്ച് നോക്കുകയാണെങ്കിൽ പണ്ടു കാലത്തുള്ള മനുഷ്യർ കൃഷികൊണ്ടാണ് ജീവിച്ചിരുന്നത് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എങ്ങനെ കൃഷി ചെയ്യണം എന്നും എങ്ങനെ നല്ല ഫലങ്ങളെ സമ്പാദിക്കാം എന്നുമുള്ളതാകുന്നു എന്നാൽ ഇന്നയുടെ തലമുറ ചിന്തിക്കുന്നത് കൃഷി എന്നു പറയുന്നത് ഒരു മോശം ജോലിയാണെന്നും കൃഷിയുടെ മഹത്വത്തെയും കൃഷിയുടെ തേജസിനെയും മറന്നുകൊണ്ട് പറന്ന് ഉയരുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ജനസമൂഹം അല്ലെങ്കിൽ ഒരു കൂട്ടം യുവാക്കൾ കൃഷി നമ്മുടെ അന്നമാണെന്നും കൃഷിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കുവാൻ നമുക്ക് അന്നം ലഭിക്കുന്നില്ല എന്നുള്ള ബോധ്യം നമ്മുടെ യുവാക്കളിൽ അഥവാ യുവതലമുറയിൽ യുവ സമൂഹത്തിൽ ഇല്ല കാരണം നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഈ യുവതലമുറ ചിന്തിക്കുന്നത് പറന്ന് ഉയരുവാൻ ആണ് വിദ്യാ സമ്പന്നരാകുവാനാണ് ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം ഇല്ലാത്തവന് ഒരു വിലയുമില്ല എന്നുള്ള തിരിച്ചറിവാണ് കൃഷിയിൽ നിന്ന് നമ്മെ അകറ്റി കൃഷി ഒരു മോശം ജോലി ആണെന്നുള്ള ബോധ്യം നമ്മളിൽ ഉണ്ടാക്കി വിദേശ പഠനങ്ങളിലേക്കും നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക തനിമയും സാംസ്കാരികമായ എല്ലാത്തിനെയും മറന്നുകൊണ്ട് വിദേശത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ നമ്മുടെ പൂർവികർ കൃഷിയുടെ മഹത്വം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നാം ഇന്ന് സമ്പൽ സമൃദ്ധിയുടെ ഈ കൊച്ചു കേരളത്തിൽ ജീവിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ ഫലങ്ങളും പുറത്തു നിന്ന് കൊണ്ടുവരേണ്ടി വരുമായിരുന്നു കൃഷി ഇല്ലാതാകുന്നതു കൊണ്ടാണ് ഇന്നത്തെ കാലത്ത് നാം ഓണത്തിനും അതുപോലെ വിഷു പോലുള്ള നമ്മുടെ ഉത്സവങ്ങളിൽ നമ്മുടെ നാടിൻ്റെ ആഘോഷങ്ങളിൽ പുറത്തു നിന്ന് പച്ചക്കറികൾ അഥവാ ഫലങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നത് നമ്മുടെ നാട്ടിൽ കൃഷി ഇല്ലാതാവുകയാണ് കൃഷി നശിക്കുകയാണ് ശരിക്കും ഇന്നത്തെ ഉന്നതകുലജാതരായിട്ടുള്ള മനുഷ്യർ കൃഷിയെ ഒരു രണ്ടാം തരമായിട്ട് മാത്രമാണ് കാണുന്നത് ഒരു മേൽ കീഴ് വ്യത്യാസം നമ്മുടെ കൃഷിയിൽ നമുക്ക് കാണാൻ സാധിക്കും കാരണം വിദ്യാ സമ്പന്നനായ ഒരുവനോട് നീ കൃഷി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൃഷിയോ എന്ത് കൃഷിയോ എന്ന് അവൻ ചോദിക്കും കാരണം ഇതുപോലൊരു മോശം ജോലി ഈ ലോകത്തില്ല എന്ന് അവൻ പറയും കാരണം പലരും ഇന്ന് ആഗ്രഹിക്കുന്നത് എയർകണ്ടീഷണറോടു കൂടിയ റൂമുകളിൽ ഇരിക്കുവാന് അതുപോലെ നല്ല ഉയർന്ന ജോലി ചെയ്യുവാനും ആണ് മണ്ണിലേക്ക് ഇറങ്ങുവാനോ മണ്ണിൽ ചവിട്ടുവാനോ വിയർപ്പ് ഒഴിച്ച് അധ്വാനിക്കുവാനോ ആർക്കും തന്നെ ഇഷ്ടമല്ല നമ്മുടെ ജീവിതവും ആരോഗ്യവും സംരക്ഷിക്കുവാൻ നമുക്ക് ഏറ്റവും പോഷണം ഏറുന്നത് നമ്മുടെ നാടുകളിൽ കൃഷി ചെയ്യുന്ന വിളകൾ തന്നെയാണ് എന്നാൽ ഇന്ന് സാംക്രമിക രോഗങ്ങൾ വർദ്ധിക്കുകയും നാം രോഗികളായി തീരുന്നത്തിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് പാശ്ചാത്യർ നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ച പാശ്ചാത്യ ഭക്ഷണ രീതിയാണ് നമ്മുടെ ഭക്ഷണരീതി തന്നെ മാറ്റിക്കൊണ്ട് ആധുനികതയുടെ വികാസം നമ്മുടെ കൊച്ചു നാട്ടിൽ എങ്ങും പ്രകടമാണ് ആധുനികത വളർന്നതുകൊണ്ട് നമ്മുടെ സാധാരണ ഭക്ഷണങ്ങൾ പോലും നമുക്ക് പുച്ഛമായി തോന്നിയേക്കാം ഇവിടെ കൃഷി ചെയ്ത് ഉത്പാദിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ നമുക്ക് മോശം ഭക്ഷണ വിഭവങ്ങൾ ആയി തോന്നിയേക്കാം കാരണം മറ്റൊന്നുമല്ല നമ്മുടെ നാവിലുള്ള രുചി എന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ച ചില മാരക വിഷങ്ങളാണ് അത് വിഷമാണെന്ന ബോധ്യം പോലും ഇല്ലാതെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ അത് ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നു സാധാരണ ഭക്ഷണം കഴിക്കുവാൻ ഒരുവനും ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല മാക്ക് ഡൊണാൾസ് പോലുള്ള സ്ഥാപനങ്ങൾ അവരുടെ ഒരു ബ്രാൻഡ് ആയി തന്നെ അവരുടെ ഭക്ഷണത്തെ മാറ്റി നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് കോളനിവൽക്കരണത്തിനു ശേഷവും നമ്മുടെ നാടുകളിൽ ഇത്തരം ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനു മുൻപും അതിനുശേഷവും കൃഷിയുടെ മഹത്വം അറിഞ്ഞ ഒരു തലമുറ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നയുടെ ഈ തലമുറയിലേക്ക് വരുമ്പോൾ കൃഷിയുടെ മഹത്വം എന്തെന്ന് അറിയാതെയും കൃഷിയുടെ ബോധ്യം എന്തെന്നറിയാതെയും ജീവിക്കുന്ന ഒരു പറ്റം മനുഷ്യർ നാം ഇന്ന് പ്രകൃതി നാശത്തിലേക്ക് നീങ്ങുകയാണ് നമ്മുടെ പല മരങ്ങളും വൃക്ഷങ്ങളും എല്ലാം വെട്ടി നശിപ്പിച്ച് പടുകൂറ്റൻ കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും പടുത്തു ഉയർത്തുകയാണ് അവിടെ നമ്മുടെ കൊച്ചു കൃഷിയിടങ്ങൾ ഇല്ലാതാവുന്നുമുണ്ട് പാടശേഖരങ്ങൾ ഇടിച്ചു നിർത്തുന്നു കുന്നുകൾ മലകൾ കാടുകൾ എല്ലാം ഇടിച്ചു നിരത്തി നമ്മുടെ കൃഷിയുടെ വൈവിധ്യം ഇല്ലാതാക്കും അതുകൊണ്ടു തന്നെ സ്പഷ്ടമായി പറയുവാൻ സാധിക്കും ഇന്നയുടെ തലമുറയിൽ പെട്ട ആർക്കും കൃഷിയിൽ വ്യാപൃതരാകുവാൻ തയ്യാറാകുന്നില്ല കാരണം പുതുമയിലേക്കാണ് അവരുടെ മനോഭാവം പുതുമയിലേക്ക് ജീവിക്കുവാനാണ് അവരുടെ ആഗ്രഹം പഴമയുടെ കാലങ്ങളെ തിരിച്ചറിയുവാനും പഴമ എന്താണെന്നുള്ള ബോധ്യം അവരുടെ ജീവിത തലങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കൊണ്ടിരിക്കുന്നു ജീവിതത്തിൽ ശരിയായ അർത്ഥം ഉണ്ടെന്ന് തിരിച്ചറിയാതെ പഴമയുടെ മഹത്വം തിരിച്ചറിയാതെ പഴമയുടെ പൊരുൾ തിരിച്ചറിയാതെ പുതുമയിൽ രോഗികളാകുവാൻ വേണ്ടി ജീവിക്കുന്ന ഒരു പറ്റം മനുഷ്യർ പണ്ടു കാലത്തുള്ള മനുഷ്യരിൽ ഒരുവിധമായ അസുഖങ്ങളും നമുക്ക് കാണുവാൻ സാധ്യമായിരുന്നില്ല എഴുപതും എഴുപത്തിനാല് എൺപതും എൺപത്തിനാല് വയസ്സു വരെ ജീവിച്ച അധ്വാനിച്ച് മരിക്കുന്ന ആരോഗ്യവാന്മാരായ മനുഷ്യഗണങ്ങളെ നമുക്ക് കാണുവാൻ സാധ്യമായിരുന്നു എന്നാൽ ഇന്നയിലേക്ക് വരുമ്പോൾ കുഞ്ഞ് കുട്ടികളിൽ പോലും ഹെർട്ട് അറ്റാക്കും അതീവ ഗുരുതരമായ ക്യാൻസർ പോലുള്ള രോഗങ്ങളും പടർന്നു പിടിക്കുന്നത് നമുക്ക് കാണാം ഇതിൻ്റെ ഒരു പ്രധാന അംശം എന്ന് പറയുന്നത് നാം കഴിക്കുന്ന ഭക്ഷണ രീതി തന്നെയാണ് നമ്മുടെ ഭക്ഷണ ക്രമത്തിൽ വന്ന മാറ്റമാണ് പണ്ടു കാലയളവിൽ ആയിരുന്നെങ്കിൽ നാം കൃഷി ചെയ്താണ് ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇന്നയുടെ ഈ കാലയളവിൽ നാം ജീവിക്കുമ്പോൾ കൃഷിയുടെ മഹത്വം മറന്ന് കൃഷി ചെയ്ത് നമുക്ക് ലഭിക്കുന്ന പച്ചക്കറികൾ അഥവാ വിത്തുകൾ വിത്ത് ഫലങ്ങൾ ഭക്ഷിക്കാതെ പുതുമയുടെ പ്രവണതയാകുന്ന ബർഗറും സാൻവിച്ചും അതുപോലെ മറ്റ് അനേകം കാര്യങ്ങളും കഴിച്ച് രോഗികളാകുവാൻ ആണ് നാം ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ തീവ്രത അറിയാതെ പോകുന്നു എന്നത് തന്നെയാണ് വാസ്തവത്തിൽ